ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ ചിത്രരചന പഠിച്ചിരുന്നു പിന്നെ നമുക്ക് കലാകാരന്മാർക്ക് അവരുടെ ചിത്രരചന എന്ന കഴിവ് അവർക്ക് കുറച്ചും കൂടി അവർക്ക് പഠിക്കാൻ ആണെങ്കിൽ ഒരുപാട് കോഴ്സുകളുണ്ട് അപ്പോൾ നമുക്ക് ഡിഗ്രിയിൽ തന്നെ ബി എ ഇൻ ഡ്രോയിങ്ങ് പെയിന്റും മറ്റു കാര്യങ്ങളുമുണ്ട് അതുപോലത്തന്നെ പാലക്കാട് നോക്കുകയാണെങ്കിൽ ഗിന്നേഴ്സ് ഡിലീഫ് ആർട് ഗാലറി ഉണ്ട് അതുപോലെ ഒരുപാട് കലാകാരന്മാരെ അവരെ വളർത്തുന്നില്ല അവരെ പരിപോഷിപ്പിക്കുന്നതിന് ഒരുപാട് കോഴ്സും മറ്റു സ്ഥാപനങ്ങളും ഉണ്ട് എനിക്ക് കലാജീവിതത്തിൽ നേടിയെടുക്കാനെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഞാൻ ചിത്രരചന അത്ര നൈപുണ്യമുള്ള ആളൊന്നും അല്ല അത്യാവശ്യത്തിനു വരയ്ക്കും എന്നാൽ കുറച്ചും കൂടി അത് നന്നായി വരയ്ക്കണമെന്നുണ്ട് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമാണ് എന്നുപറഞ്ഞാൽ ആളുകളെ വരയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് ഒരു കാണുമ്പോൾ ഒരു ജീവനുള്ള ഒരു വസ്തുവായിട്ട് അല്ലെങ്കിൽ നമ്മളത് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു വസ്തുവായിട്ട് ഒറിജിനൽ വസ്തുവായിട്ട് എനിക്ക് വരയ്ക്കണമെന്ന് ഭയങ്കരാഗ്രഹമാണ് തീർച്ചയായും കുറച്ചും കൂടി ഞാൻ ചിത്രരചന പഠിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെ പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒഴിവുള്ള സമയങ്ങളിൽ നമ്മളതിന് വേണ്ടി സമയം കണ്ടെത്തി പഠിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇതിനു വേണ്ടി പ്രത്യേകം സമയം മാറ്റിവെക്കാൻ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ തിരക്കേറിയ ജീവിതമാണെങ്കിൽ അവരവർക്ക് സമയം കിട്ടുന്ന മാതിരി നമ്മൾ അതിനനുസരിച്ചു നമ്മൾ പ്രയത്നിക്കുക